ഹലോ പ്ലാസ ഹോട്ടലല്ലേ ഞാൻ വൈകുന്നേരം നാലു മണിക്ക് വിളിച്ച് നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പത്ത് പൊറോട്ടയും ഒരു ചിക്കൻ കുറുമയും ഒരു വെജിറ്റബിൾ ബിരിയാണിയും ഒരു ചിക്കൻ ഫ്രയ്യും ഒര് ഗോബി മഞ്ചൂരിയും ഉൾപ്പെടെയുള്ള കുറെ വിഭവങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ നിമിഷം വരേക്കും എനിക്ക് ഫുഡ് ഐറ്റം ഇതുവരെയും ഡെലിവർ ആയിട്ടില്ല ഇതിൻ്റെ എന്താണ് നിലവിലുള്ള സ്ഥിതി എന്നും എനിക്കറിയില്ല എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതുവരെ ഡെലിവറി ബോയ്സിൻ്റെ ആരുടേയും ഒരു വിളിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞാൻ ഇതും പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ ഏറെ സമയങ്ങളായി എന്താണ് അതിൻ്റെ നിലയെന്ന് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയാൻ താൽപ്പര്യമുണ്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ കഴിയുമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക പറ്റുമെങ്കിൽ എത്രയും പെട്ടന്ന് തന്നെ ഫുഡ് ഐറ്റം ഒന്ന് ഡെലിവറി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം വളരെ അധികം സമയമായി ഞാനാ ഒരു സാധനം ഓർഡറ് ചെയ്തിട്ട് ഒരു ആഹാരസാധനം ഓർഡറ് ചെയ്തിട്ട് ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരേയധികം സമയങ്ങളായി